കാർഷിക വ്യവസായത്തെ മെച്ചപ്പെടുത്തേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഗ്രാമീണ മേഖലയിൽ ഇന്നും കൃഷി വളരെ പൗരാണികമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണമായി ജലസേചനം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് പിന്നെ ജലം പമ്പ് ചെയ്യുന്നതിന് കൃഷി സ്ഥലത്തേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടത്ര മോട്ടോറുകളില്ല കിണറുകളില്ല ഇത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ മെഷിനറികൾ യന്ത്രങ്ങൾ പൊതുവേ ഈ കാർഷിക മേഖലയിൽ വളരെ കുറവാണ് യന്ത്രങ്ങൾ ലഭ്യമാണെങ്കിലും ഈ യന്ത്രങ്ങൾ കൃഷിസ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ട റോഡ് സൗകര്യങ്ങൾ പലപ്പോഴും ഇല്ലാത്ത ഒരവസ്ഥയാണ് കൃഷി സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ റോഡ് വേണം പല പല കൃഷി സ്ഥലങ്ങളിലേക്കും ഇന്നും റോഡുകളില്ല അതുപോലെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക മാർക്കറ്റിങ്ങ് എടുത്തുകൊണ്ടുപോകാൻ റോഡ് വേണം അതില്ല അതുപോലെ മാ ചന്തകൾ പരിസരത്ത് കൃഷിക്കാർ കൂടുതൽ ഉള്ള ഭാഗങ്ങളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചന്തകൾ ആവശ്യമാണ് അത് പല സ്ഥലങ്ങളിലുമില്ല ഇത് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് കയറ്റി ദൂരെയുള്ള മാർക്കറ്റുകളിലേക്ക് എത്തിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അങ്ങനെ എത്തിക്കുമ്പോൾ അതിനുവേണ്ട ട്രാൻസ് ഉള്ള ചരക്ക് നീക്കം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അതും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടാൽ മാത്രമേ കാർഷിക വ്യവസായത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുകയുളളൂ